അതിഥികളെ സൽക്കരിക്കുക എന്നത് പുരാതനകാലം തൊട്ടേ കേരളത്തുക്കാരുടെ ഒരു പ്രത്യേകതയാണ് കാരണം അതിഥി ദേവോ ഭവ എന്നാണ് പറയാറുള്ളത് അപ്പോൾ വീട്ടിൽ വരുന്ന അഥിതികളെ ഒരിക്കലും അപമാനിച്ചു വിടാൻ പാടില്ല കഴിയുന്നതും അവരെ സന്തോഷിപ്പിക്കാനാണ് കേരളത്തുകാര് ശ്രമിക്കാറുള്ളത് അപ്പോൾ അവര് പൊതുവേ വീട്ടിലൊരു അതിഥി വന്നാൽ പൊതുവേ നമ്മളവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് മുൻകൂട്ടി അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതുണ്ടാക്കി കൊടുക്കാറാണ് പതിവുള്ളത് കൂടുതലും ഇന്നത്തെ തലമുറ എന്ന് വെച്ചാൽ കൂടുതലും വെജിനെക്കാട്ടിലും നോൺ വെജ് ആണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ കൂടുതലും നോൺവെജ് ഐറ്റംസ് ആയിരിക്കും എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടാറുള്ളതും ഉദാഹരണത്തിന് മീൻ വറുത്തത് കോഴി പൊരിച്ചത് ചിക്കൻ കറി ബീഫ് കറി ഇതൊക്കെ ബീഫ് കറി അതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു സൽക്കരണ വീട്ടില് ഏതെങ്കിലും അതിഥി വന്നാല് സൽക്കരി സൽക്കരണ ടേബിളിൽ ഇത്രയും സാധനങ്ങൾ എന്തായാലും കാണും കാരണം ഇതൊക്കെയാണ് ഇന്ന് കേരത്ത് കേരളത്തില് ട്രെൻഡിങ്ങായി കിടക്കുന്ന ഭക്ഷണരീതികൾ എന്ന് പറഞ്ഞത് പിന്നെ അതിഥികളെ സൽക്കരിക്കല് നമ്മുടെ കടമയാണല്ലോ